ഹലോ ഒരു സൈക്കിൾ എടുക്കാൻ വേണ്ടിയായിരുന്നേ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലതായിട്ടുള്ള ഏതാണ് നിൽക്കുന്നത്

ഓക്കെ അപ്പം അതിനും അപ്പം അതിൻ്റെ ഫു ഏറ്റവും ബേസ് വേരിയന്റ് വരുന്ന റേറ്റാണോ പറഞ്ഞത് ഓക്കെ അപ്പം കളർ വേരിയന്റൊക്കെ നമുക്ക് എല്ലാം ലഭ്യമാണല്ലോ ഓക്കെ അപ്പം അത് നമ്മൾ ഞാൻ വന്ന് പൈസ അടച്ച് എനിക്കപ്പം തന്നെ കിട്ടുമോ അതോ വെയ്റ്റ് ചെയ്യേണ്ടി വരുമോ ഓക്കെ അപ്പം വീട്ടിൽ കൊണ്ടുത്തരുമോ അതോ ഞങ്ങൾ വന്ന് എടുക്കേണ്ടി വരുമായിരിക്കുമോ അല്ല പേ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയത് ഹോം ഡെലിവെറി ആയിട്ട് ഓ ഡെലിവെറി ചാർജായിട്ട് വരുമല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഈ സൈക്കിളിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ എങ്ങനെ അപ്പോൾ ടൂ ഇയർ വാറന്റിക്കകത്ത് നമുക്കെന്തെങ്കിലും പറ്റിയാൽ റീപ്ലേസ്മെന്റ് ആണോ അതോ എന്തെങ്കിലും സർവീസ് ചെയ്ത് തരാറുണ്ട് അപ്പോൾ പാർട്സൊക്കെ മാറ്റി തരും അത്രേയുള്ളല്ലേ ഓക്കെ അപ്പം എന്തേലും ഉണ്ടെങ്കിൽ ഞാനപ്പോൾ ഷോപ്പിലോട്ട് വന്നിട്ട് പേരെങ്ങനെയായിരുന്നു അപ്പോൾ ഞാനവിടെ വന്ന് അന്വേഷിച്ചാൽ പോരെ ആ എന്നാൽ ശെരിയെന്നാൽ ഞാനെന്നാൽ ഓക്കെ നേരിട്ട് വരുമ്പോൾ കാണാം ഓക്കേ